ഞാനും എൻ്റെ സഹപാഠിയും കൂടിയാണ് ഒരു ഫാം തുറന്നത് ആ ഫാമിൽ ഒരുപാട് കോഴികളും താറാവുകളും ആടുകളുമുണ്ട് ഞാൻ അവയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ട ആഹാരങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും അവരുടെ വാസസ്ഥലം വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അതുപോലെതന്നെ ഒരുപാട് പക്ഷികളും ഒരുപാട് മൃഗങ്ങളും എൻ്റെ ഫാമിലുണ്ട് അവയെയെല്ലാം ഞാൻ വളരെ സ്വതന്ത്രമായാണ് വിട്ടിരിക്കുന്നത് അവർക്കെല്ലാം വേണ്ട നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുകയും അവർക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള വാസസ്ഥലം ഞാൻ ഒരുക്കുകയും ചെയ്യുന്നു അവർ പ്രകൃതിയോട് ഒത്തുചേർന്നുതന്നെ ജീവിക്കുന്നു അവർക്ക് അവിടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സഹപാഠിയും എന്നെപ്പോലെ തന്നെ ഒരു മൃഗസ്നേഹിയായതുകൊണ്ട് അവനും ഞാനും ഒന്നിച്ചാണിത് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് മൃഗങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്